ലോക്ക് ഡൗൺൻ്റെ സമയത്ത് ആളുകൾ കൂടുതലായിട്ട് ആ സ്മാട്ട് ഫോണ്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ചെറിയ കുട്ടികൾ മുതൽ പ്രായം ആയവർ വരെ സ്മാട്ട് ഫോണ്കളുടെ ഉപയോഗം നല്ല രീതിക്ക് കൂടിയ സമയം ആണത് എല്ലാവരും തന്നെ ചെറിയ പ്രായം തൊട്ട് ഉള്ള മുതിർന്ന ആളുകൾ വരെ സ്മാട്ട് ഫോണുകൾ അങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിച്ചു വാട്ട്സപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമ്കളുടെ ഉപയോഗം ഏറ്റവും കൂടി നിന്നിരുന്ന സമയാണ് അതിന് ശേഷം അങ്ങനെ അതിന് ശേഷവും കൊറോണക്ക് ശേഷവും അങ്ങനെ തന്നെയാണ് ആളുകൾ ഇപ്പോഴും ഫോണ്കളുടെ ഉപയോഗം കുറച്ചിട്ട് ഒന്നും ഇല്ല ആ സമയത്ത് കുട്ടികളുടെ പഠനത്തിന് പോലും ഉപയോഗിച്ചിരുന്നത് സ്മാട്ട് ഫോണ്കളും ലാപ്ടോപ്പും ഒക്കെയാണ് ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്റര്നെറ്റിൻ്റെ ഉപയോഗം ആ കൂടി വന്ന സമയം ആളുകൾ എല്ലാവരും തന്നെ വീടുകൾ വീടുകളിൽ തന്നെയായിരുന്നു ആയതിനാൽ ആ ഇന്റര്നെറ്റിന്റെ ഉപയോഗം വളരെ കൂടുതലായിരുന്നു ആ ആളുകളോട് അകലത്തിലിരുന്നു സംസാരിക്കാൻ ഉള്ള ഒരു മാർഗമായിട്ട് ഈ ഫോണ്കൾ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ന് വളരെ അധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കൊറോണ സമയത്ത് ഫോണ്കളും ലാപ്ടോപ്പ്കളും മാറിയിട്ടുണ്ട് ഇന്റര്നെറ്റിൻ്റെ ഉപയോഗവും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ആളുകൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു സമയം ആണത് അതുപോലെ തന്നെ വേറൊരു വശം പറഞ്ഞാൽ അത് ദോഷമായി മാറിയിട്ടുണ്ട് പലർക്കും ചെറ് കുട്ടികളിൽ തന്നെ ഇത് ദോഷമായി മാറിയിട്ടുണ്ട് കാരണം ഫോണ്കളുടെയും ഇന്റർനെറ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ആ ആ ഇന്നും സംഭവിക്കുന്നുണ്ട് ആ ഇതാണ് ഒരു ആ ആ ആ ആ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന രീതിയിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം